നമ്മൾ കേരളത്തിൽ പ്രധാനമായിട്ടും ചെടികൾ ക്ക് വെല്ലുവിളിയാകുന്ന രണ്ട് കാലാവസ്ഥകൾ ഒന്ന് വേനൽക്കാലവും ഒന്ന് മഴക്കാലവുമാണ് വേനൽക്കാലത്ത് പ്രധാനമായിട്ടും ചെയ്യുന്നത് മണ്ണ് വെള്ളം മണ്ണ് ഉറച്ചു പോകുന്ന ഒരു ഇത് ഉണ്ടാവും വേനൽക്കാലത്ത് അപ്പോൾ മണ്ണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പിന്നെ മാന്തി ഇട്ടുകൊടുക്കുക വളം ചെയ്തുകൊടുക്കുക പിന്നെ ധാരാളം വെള്ളം നനക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യുക പിന്നെ അതിന് കൃത്യമായിട്ട് അതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകാതെയും വെള്ളം മണ്ണിനുള്ള വെള്ളം വറ്റിപ്പോകാതെ എല്ലാം കൃത്യമായിട്ട് വെള്ളം നൽകിക്കൊണ്ട് അങ്ങനെ നമ്മൾ സംരക്ഷിക്കും വേനൽക്കാലത്ത് മഴക്കാലത്ത് ആണെങ്കിൽ മഴ നനക്കുക മഴ അധികം കൊണ്ട് മഴ അധികം കൊണ്ട് കഴിഞ്ഞാൽ നശിച്ചുപോകുന്ന ചെടികൾ ഉണ്ട് ഈ വെള്ളം കൂടുതൽ വേണ്ടാത്ത ചെടികളുണ്ട് അങ്ങനെയുള്ള ചെടികളെ നമ്മൾ മഴ കൊള്ളാതെ മഴ ഏൽക്കാണ്ട് നമ്മൾ ഒരു സൈഡിൽ മഴ നനയാണ്ട് എടുത്ത് മാറ്റിവെച്ചിട്ട് സംരക്ഷിക്കണം അങ്ങനെയാണ് ആ ചെടികളെ സംരക്ഷിക്കേണ്ടത് പിന്നെ ഒരു ഓരോ കാലത്തും ഓരോ ചെടികൾക്ക് വളർച്ചയുടെ ഓരോ സമയമുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ബോഗൻ വില്ല ബോഗൻ വില്ല നമ്മുടെ കടലാസ് പൂവിൻ്റെ ചെടി ആ ചെടികളൊക്കെ ഒരു സമയമായിക്കഴിഞ്ഞാൽ മാത്രം പൂവിടുകയും അത് കഴിഞ്ഞാൽ അതുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പൂവ് ഉണ്ടാവില്ല കൊമ്പ് മാത്രമായിട്ട് കാണാം പിന്നെ ആ ആയൊരു കൊമ്പ് കൊത്തി കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊമ്പുകളൊക്കെ കൊത്തി കൊത്തി കൊടുത്ത് പിന്നെ പിന്നെ അതിൻ്റെ പൂവുകൾ വിടരേണ്ട സമയമാകുമ്പോഴ്ത്തേനും ആ കൊമ്പ് കൊമ്പുകൾ എല്ലാം വളർന്ന് കൊമ്പുകൾ ഇല ഇലകൾ ഇല്ലാതെ പൂവുകൾ മാത്രമായിട്ട് വരും അങ്ങനെ ആ ചെടികളെ അങ്ങനെ സംരക്ഷിക്കണം അങ്ങനെ ഈ രണ്ടും മൂന്ന് തരത്തിലാണ് ചെടികളെ ഓരോ കാലങ്ങളിലും മാറി മാറി കാലാവസ്ഥകളിൽ നമ്മൾ ചെടികളെ സംരക്ഷിക്കുക